ഹ ഹലോ ഇത് എ സി ഏജൻസി അല്ലേ ആ എന്റെ പേര് ഷാഹിൻ ഞാൻ ഇങ്ങ് ബറയ്യന്നൂർ മൂന്ന് മുക്കിൽ നിന്ന് വിളിക്കുകയാണ് ഞാൻ കഴിഞ്ഞ നാല് മാസത്തിന് മുമ്പ് നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഒരു എ സി വാങ്ങിച്ചിരുന്നു അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത് കൂളിങ്ങും ഇല്ല പക്ഷേ അത് അത് കൂളിങ്ങ് ഇല്ല കൂളിങ്ങ് ഇല്ല ഇത് വാ വാറണ്ടി ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് വാ വാങ്ങിച്ചത് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അതിപ്പം നിങ്ങൾ വാറണ്ടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അത് കടയിൽ നിന്ന് എടുത്തത് എന്നിട്ടിപ്പം ഇങ്ങനെ കംപ്ലെയിൻറ് വന്നാൽ ആ രണ്ട് ദിവസം ആ ഇതിപ്പോൾ കറണ്ട് ബില്ലും കൂടുന്നുണ്ട് അത് വെച്ചിട്ട് മുമ്പത്തേക്കാളും ഇപ്പോൾ ഇരട്ടിയായി ആ എനിക്ക് അങ്ങനെയാണത് തോന്നുന്നത് നിങ്ങൾ കറണ്ട് ബിൽ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇത് വാങ്ങിച്ചത് നാൽപ്പതിനായിരം രൂപ ആ ഫൈവ് സ്റ്റാർ ആണ് അപ്പം നിങ്ങൾ ഇത് എന്ന് വന്ന് ശരിയാക്കും അതൊന്നും പറ്റില്ല ഇത് നാളെ തന്നെ ശരിയാക്കണം ലൊക്കേഷൻ പറഞ്ഞ് തരാം നാളെ തന്നെ വന്നാലേ പറ്റൂ ഇത് എത്രയും പെട്ടെന്ന് ശെ ശരിയാക്കി തന്നാലേ പറ്റൂ ലൊക്കേഷൻ ഇത് ബറയ്യന്നൂർ നിന്ന് ശിവക്ഷേത്രം അവിടുന്ന് തണ്ണിച്ചാൽ റൂട്ട് അറിയാത്ത് അറിയാമോ അവിടെ തണ്ണിച്ചാൽ ചോദിച്ചാൽ മതി അവിടെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ മതി അവിടെ നിന്ന് വട്ടക്കരിക്കകം അവിടെ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ മതി അവിടെ വാട്ടർ ടാങ്കിൻറെ അവിടെയാണ് ആ പ്രശ്നം പരിഹരിക്കണം വേറെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ലീക്ക് ആകുന്നുണ്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്

എക്സ്ചേഞ്ച് ചെയ്യാൻ ഒക്കുവോ ആ അത് എങ്ങനെയാണ് ഇത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ കംപ്ലെയിൻറ് വരുത്തിയതല്ലല്ലോ അങ്ങനെയൊന്നും പറ്റില്ല നിങ്ങൾ ഇത് ഒരു വർഷത്തെ വാറണ്ടി പറയുന്നില്ലേ ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ആ ഈ കഴിഞ്ഞ രണ്ട് മാസം ഭയങ്കര ചൂടായിരുന്നല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് നിങ്ങളുടെ ആ കമ്പനി നല്ല സർവീസ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് അവിടുന്ന് വാങ്ങിച്ചത് ഇതിപ്പം ഇങ്ങനെ വരും എന്ന് ആരും വിചാരിച്ചില്ല ഓക്കെ ഓക്കെ അപ്പം കറക്റ്റ് ആയിട്ട് എന്ന് വരും നിങ്ങൾ

ലൊക്കേഷൻ ശിവക്ഷേത്രം അവിടുന്ന് തണ്ണിച്ചാൽ പിന്നെ വട്ടക്കരിക്കകം വാട്ടർ ടാങ്ക് എന്താണ് ആ വാട്ട്സാപ്പ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റിനാല് ഓക്കെ ഓക്കെ ഓക്കെ ശരി